ഒഴിവാക്കാൻ പറ്റാത്ത ഏപ്പ് എന്നു പറയുന്നത് വാട്സപ്പൊക്കെയാണ് വാട്സപ്പ് അതുപോലെയുള്ള ക്രോമ് അതുപോലെ വിക്കീപീഡിയ പോലുള്ള പിന്നെ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെയുള്ള ആപ്പുകളൊക്കെയാണ് ഒഴിവാക്കാൻ പറ്റാത്ത ജീവിതത്തിൽ ഇപ്പോൾ ഡെയിലി ലൈഫിലാണെങ്കിലും വാട്സാപ്പ് നമുക്ക് വിളിക്കാണ്ട് തന്നെ ആശയ വിനിമയം നടത്താൻ പറ്റിയ ഒരപ്ളിക്കേഷനാണ് വാട്സപ്പ് അതുപോലെയുള്ള ഇൻസ്റ്റാഗ്രാം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മക്കിപ്പോൾ എന്തെങ്കിലും സെർച്ച് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ക്രോമൊക്കെ യൂസ് ചെയ്യുക സെർച്ച് എഞ്ചിൻ പോലെ യൂസ് ചെയ്യാം നമ്മൾക്ക് ഉള്ള എല്ലാ കാര്യങ്ങളും കിട്ടും അതുപോലെ യുറ്റൂബാണെങ്കിലും നമുക്ക് എല്ലാ വീഡിയോസും ന്യുസാണെങ്കിലും എല്ലാം നമുക്ക് പഠിക്കാനുള്ളതാണെങ്കിലും എല്ലാം നമുക്ക് അതിൽ കിട്ടും അതുപോലെ ഇൻസ്റ്റാഗ്രാമൊക്കെയാണെങ്കിൽ നമുക്ക് ടൈം പോവാനും ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ് കുറേ നേരം അതിൽ കയറിയെന്നു പറഞ്ഞാൽ നമ്മൾക്ക് ഡാറ്റ ഉണ്ടെങ്കിൽ ഡാറ്റ തീർക്കാനും ഒക്കെ നമ്മൾ ഡൈലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസാണ് ഇതൊക്കെ